ഞങ്ങളുടെ വീട്ടിലൊരു അതിഥി വരികയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും അത് കാലാസ്ഥയെ അനുസരിച്ചായിരിക്കും തണുപ്പുള്ള കാലാവസ്ഥ ആണെങ്കിൽ ചായ കാപ്പി തുടങ്ങിയവയാണ് നൽകാറുള്ളത് ഇനി ചൂടുള്ള കാലാവസ്ഥയാണെങ്കില് തണുത്ത വെള്ളം നാരങ്ങ വെള്ളം അല്ലെങ്കിൽ സംഭാരം അങ്ങനെയുള്ള പാനീയങ്ങളാണ് കൊടുക്കൽ ഉള്ളത് പിന്നെ ആളുകൾക്കായിട്ട് പാചകം ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളതെന്നു പറയുന്നത് നോൺ വെജ് ആയിട്ടുള്ള ഐറ്റംസ് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് പിന്നെ ചിക്കൻ കറി മുട്ട കറി അങ്ങനെ ഉള്ളതൊക്കെ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് പിന്നെ ബിരിയാണി കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്